എൻ്റെ ഉപജീവന മാർഗ്ഗം തയ്യൽ മഷീനാണ് എനിക്ക് പണ്ട് മുതലേ ഫേഷനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനാദ്യം കയ്യിനെ കൊണ്ട് തുന്നി പല മോഡൽസിലും മെറ്റീരിയൽ വാങ്ങി അതിനെ കൊണ്ട് പല മോഡൽസിലും തുന്നി നല്ല നല്ല ഡിസൈനുകൾ ഉണ്ടാക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം തയ്യൽ മെഷീൻ വാങ്ങി ചവിട്ടുന്ന തയ്യൽ മെഷീൻ വാങ്ങി അതിൽ നിന്ന് ഒരോരോ ചെറിയ ചെറിയ രീതികളിൽ പഠിക്കാൻ തുടങ്ങി ഞാൻ ചുരിദാറും ബ്ലൗസും എല്ലാം അടിക്കുന്ന വിധത്തിലെത്തി ഏത് മോഡൽ തന്നാലും ഞാനത് അടിച്ച് കൊടുക്കും കസ്റ്റമറുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടാണ് തയ്ച്ചു കൊടുക്കാറ് ഇപ്പം ഞാൻ ഇലക്ട്രിക് മഷീനാണ് വാങ്ങിയിട്ടുള്ളത് അതാകുമ്പം കൂടുതൽ എളുപ്പമാണ് കാൽ ജസ്റ്റൊന്ന് ഇതാ ചവിട്ടി കൊടുക്കുകയേ വേണ്ടൂ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടി ഇതായിക്കോളും ഇപ്പോൾ എനിക്ക് അഞ്ച് ചുരിദാറെങ്കിലും ഒരു ദിവസം തയ്ക്കാൻ പറ്റുന്നുണ്ട് കുറെ കുറെ ഓർഡറുകൾ എനിക്ക് ഇന്ന് കിട്ടുന്നുണ്ട് ബ്ലൗസായിട്ടും ഏത് തരത്തിൽ വേണമെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അടിച്ചു കൊടുക്കാറുണ്ട്